നമ്മുടെ നാട്ടിൽ ശരീരത്തിന്റെ ഭാരം കൂട്ടുവാനായിട്ട് ശ്രമിക്കുന്നവര്ക്കുള്ള ഒരു ഒരു ചവനപ്രാശം ലേഹ്യം ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് ശരീരത്തിന്റെ ഭാരങ്ങൾ കൂടുവാനായിട്ട് സാധിക്കുന്നുണ്ട് പലര്ക്കും ശരീരത്തിന്റെ ഭാരം കൂടാനായിട്ട് ആഗ്രഹിക്കുന്നവര്ക്ക് അതിന്റെ ഭക്ഷണരീതികളൊക്കെ വന്നു ക്രമപ്പെടുത്തി ഭക്ഷണം കഴിക്കുമ്പോൾ അതിനുള്ള മരുന്നുകൂടെ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ശരീരത്തിന്റെ ഭാരം കൂട്ടുവാനായിട്ട് സാധിക്കുന്നുണ്ട് ലേഹ്യങ്ങൾ അരിഷ്ടങ്ങൾ ഇവയൊക്കെ ഉപയോഗിക്കുമ്പോഴാണ്